ഹലോ ആ അതെയല്ലോ ആ ആണോ ആ

ആണോ ഓക്കെ ഇപ്പോഴും പ്രശ്നം ഇപ്പോഴും ഉണ്ടോ വേദന ഇപ്പോഴും ഉണ്ടോ ആ ഹാ ആ മ്മ് ആ ഹാ ഹാ ഇപ്പം മെഡിസിനെടുക്കുന്നുണ്ടോ ഇപ്പം മെഡിസിനെടുക്കുന്നുണ്ടോ എന്ന് ആ ഹാ ഹാ ആണോ ഹാ ആ ഹാ ഹാ അസിഡിറ്റിയുണ്ടല്ലേ

ആ ഹാ ഹാ ഇ സി ജി ലൊന്നും കുഴപ്പം ഇല്ലല്ലോ ഇ സി ജി യൊക്കെ എടുത്തതല്ലേ ആണോ ആണോ ഓക്കെ ആ ഡോക്ടറ് എഴുതിയ പിന്നെ എല്ലാം കൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടോ ഒ പി ലൊന്ന് വന്ന് കാണിക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആ മെഡിസിനെന്തായാലും നിര്ത്തേണ്ട ആ ആ ഹാ ഹാ അത് ഗ്യാസ് ഉള്ള അങ്ങനെത്തെ ഫുഡ്കളൊക്കെ കുറേ പരമാവധി ഒഴിവാക്കുക കുറച്ച് കിഴങ്ങ് വർഗങ്ങളും എണ്ണ എണ്ണക്കടികള് അങ്ങനെയൊന്നും കഴിക്കാതിരിക്കൂ ആ ഹാ ഹാ ആ ഹാ ഫുഡ് പിന്നെ കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്ക് ആ ആ അതാണ് മ്മ് മ്മ് ഹ്മ് ഓക്കെ എന്തായാലും സമയം പോലെ ഒന്ന് ഒ പി ൽ വന്ന് ഞാനുണ്ടാവും ഒ പി ൽ ആ ഞാനെന്തായാലും ഒരു പത്ത് മണി തൊട്ട് ഒരു മണി വരെയൊക്കെ ഉണ്ടാവും പിന്നെ വീട്ടിൽ നോക്കുന്നുണ്ട് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെ ഏ ഹോസ്പിറ്റൽൽ ഹോസ്പിറ്റൽൽ ഒരു മണി വരേയുള്ളൂ ആ പത്ത് മണി തൊട്ട് റൗണ്ട്സെല്ലാം കഴിഞ്ഞിട്ട് പത്ത് മണിയാവും ഒ പി യിലെത്തുമ്പം മ്മ് മ്മ് ആ ആ ഓക്കെ ആ വെള്ളിയാഴ്ച വരെയുണ്ട് മ്മ് നിങ്ങൾക്ക് ഹോസ്പിറ്റല് വരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലേയ്ക്ക് വന്നോ കുഴപ്പം ഇല്ല മ്മ് ഓക്കെ